ഇപ്പം പരസ്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഉൽപ്പന്നത്തെയോ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ പൊതു ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗ്ഗമാണ് നമുക്കു പരസ്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല വഴിയുണ്ട് അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ ന്യൂസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ന്യൂസ് വഴി അതായത് ന്യൂസ് ചാനൽ വഴി പിന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിവി ഷോസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതായത് മീഡിയാസ് കാര്യങ്ങൾ അതിലൊക്കെ നമുക്കിങ്ങനെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കു കൂടുതൽ അതായത് നമ്മൾ എപ്പോഴും കാണുന്ന പരസ്യം എന്നു വെച്ച് നമുക്ക് അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ പരസ്യത്തിൻ്റെ സ്ഥലത്തൊക്കെ പോവാണെങ്കിൽ അതായത് അതായത് മേടിയ്ക്കാൻ പോയാൽ തന്നെ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു പരസ്യമാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമല്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു ഇതായിരിക്കും എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പെട്ടെന്നു കാണുമ്പോൾ ഇതു നാം ഞാൻ പരസ്യത്തിൽ കണ്ടതാണല്ലോ ഇത് നല്ല സാധനം ആയിരിക്കും എന്നൊരു മൈൻഡിൽ നമ്മൾ മേടിയ്ക്കും അതാണ് ഈ പരസ്യ കമ്പനിക്കാരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതാണിപ്പോൾ പരസ്യത്തെക്കുറിച്ചു പറയാനാണെങ്കിൽ ഇതേ ഉള്ളൂ